ഒട്ടേറെ വൈവിധ്യമാർന്ന കലാ രൂപങ്ങള് നമ്മുടെ ഈ കൊച്ച് കേരളത്തിലുണ്ട് അപ്പം അതിലൊരു മെയ്നായിട്ട് ഞങ്ങളുടെ പ്രദേശത്ത് കണ്ട് വരുന്ന ഒരു കലാ രൂപം ഒര് കലാസൃഷ്ടിയെന്ന് ഒക്കെ പറയുന്നത് ഈ തിരുവാതിര കളിയാണ് തിരുവാതിര കളി ഇപ്പം നമ്മുടെ ഓണത്തിന് അവര് അത് പ്രെസൻ്റെ ചെയ്യാറുണ്ട് അത് പോലെ തന്നെ ആചാര അനുഷ്ടാനങ്ങളുടെ ഭാഗമായും അല്ലാതേയും ഒക്കെ അവതരിക്കപ്പെടുന്ന ഒരു നൃത്ത രൂപമാണ് ഈ തിരുവാതിര കളി എന്ന് പറയുന്നത് അപ്പോൾ അത് ഞങ്ങളുടെ പ്രദേശത്ത് നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഒക്കെ വന്ന് കഴിഞ്ഞാൽ തിരുവാതിര കളി മെയിനായിട്ട് ഉള്ളതാണ് അത് പോലെ തന്നെ ഈ കോല് കളി പിന്നെ ഉള്ള ഞങ്ങളുടെ ഉള്ള ഈ പ്രദേശത്തേറ്റവും കൂടുതല് കണ്ട് വരുന്നത് കാവടിയാട്ടം ഉത്സവങ്ങളിലൊക്കെ കാണുന്ന കാവടിയാട്ടം ഗരുഡൻ തുള്ളല് അപ്പം ഈ ഗരുഡൻ തുള്ളൽ എന്ന് പറഞ്ഞ ആ അമ്പലത്തിനെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ അവരുടെ അനുഷ്ടാനങ്ങളൊക്കെ പ്രതിനിധീകരിച്ച് കൊണ്ടാണ് അവർ ഈ ഗരുഡൻ തുള്ളലൊക്കെ വെക്കുന്നത് അപ്പോൾ അത് നല്ല ഭംഗിയാണ് അത് ഓരോ കാര്യങ്ങളും അവര് ഒരുങ്ങുന്നത് കാണാനും ഇ വഴിയിൽ കൂടെ ഗരുഡൻ തുള്ളി പോവുന്നത് കാണാനുമൊക്കെ വളരെ നല്ല രസമുള്ളൊരു കലാ രൂപമായിട്ടെനിക്ക് തോന്നിയിട്ടുണ്ട് അത് മറ്റുള്ളവരെ ആകർഷിക്കാറുവുണ്ട് കണ്ട് നിൽക്കാൻ നമുക്കൊരുപാട് തോന്നും ഗരുഡൻ തുള്ളി പോകുന്നതും നമ്മുടെ അടുത്തോട്ട് പെട്ടെന്ന് വരുന്നതും ഒക്കെ കാണും ഒക്കെ അതൊരു ഭയമായിരിക്കും പക്ഷെ അത് നമുക്ക് ആസ്വദിക്കാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട് പിന്നേ ഇന എൻ്റെ പ്രദേശത്ത് നടന്നൊരു കലാ രൂപം അല്ലെങ്കിൽ ന്ന് പറയുന്നത് മാർഗംകളി ഇപ്പം ഞങ്ങളുടെ പ്രദേശത്തൊരുപാട് ക്രിസ്ത്യൻ സംഘങ്ങളുണ്ട് അപ്പം അവരുടെ വീട്ടിലൊരു കല്യാണമോ അല്ലെങ്കില് എന്തെങ്കിലുമൊരു അത് പോലുള്ള എന്തേലും ഒരു യോഗവോ അല്ലെങ്കിൽ കുടുംബയോഗം അങ്ങനെ ഉള്ള ഒരു കാര്യം മാർഗംകളി ഒരു ഫങ്ഷ ഇത് പരിപാടി ആയിട്ടവര് ഇങ്ങനെ വയ്ക്കാറുണ്ട് ആ മാർഗംകളിയിലൂടെയാണേലും പഴയ രീതികളൊക്കെ അതായത് ചട്ടയും മുണ്ടും ആ ഒരു കാര്യങ്ങളക്കെ അവര് ഇട്ട് നല്ല രീതിയിൽ അവര് ഡാൻസ്സ് കളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് പോലെ തന്നെ അവരുടെ ആ ക്നാനായക്കാരുടെ ഒരൂ സമൂഹത്തിൻ്റെ കാര്യങ്ങള് അവരുടെ കുറെ ചെപ്പേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ആ ഒര് പാട്ടിലൂടെ കുറെ കാര്യങ്ങളക്കെയാണ് അവര് അവതരിപ്പിക്കുന്നത് അ ആ ഡാൻസിലൂടെ ഒക്കെ അപ്പോൾ ഈ ഇത്ര ഈ മോഹിനിയാട്ടം അത് പോലെ തിരുവാതിര കളി ക്കാ ഗരുഡൻതുള്ളൽ കാവടിയാട്ടം മാർഗംകളി കഥകളി ഇതൊക്കെയാണ് എൻ്റെ പ്രദേശത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉയർന്ന് വരുന്ന കലാ രൂപങ്ങള് എന്നൊക്കെ പറയാൻ ആയിട്ടെനിക്ക് സാധിക്കുന്നത് അത് ചിലതൊക്കെ പരമ്പരാഗതമായിട്ട് ഉള്ളത് കൊണ്ട് ചിലത് ഇപ്പം വന്നത് കൊണ്ട് ഇപ്പം വേറെ ഒരു ഇത് എടുക്കുവാണെങ്കില് ഈ മ്യാജിക് അതൊക്കെ ഇപ്പം വന്ന ഒരു കലാരൂപമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും പിന്നത് പോലെ തന്നെ എന്താ ഈ പാവ കളി പാവ കളി എന്നൊക്കെ പറയുന്ന പണ്ടുള്ള ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു നൃ ത്ത അല്ലെങ്കിലൊരു കലാരൂപമാണ് എന്നൊക്കെ പറയാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രദേശത്ത് ഞാൻ കണ്ട് വരുന്ന അല്ലെങ്കിൽ മെ ഞാൻ കൂടുതൽ കാണുന്നത് ഇങ്ങനെ ഉള്ള കലാരൂപങ്ങളും കലാരൂപങ്ങളാണ്